റെഡ്മിൻ്റെ അറുവത്തിയേഴ് വാട്ട് അഡാപ്റ്ററാണ് ചാർജ്ജറാണ് ഞാൻ യൂസെയ്യണത് നല്ല ചാർജ്ജറെന്നെയാണ് കമ്പനി റെഡ്മി ആയാലും നല്ല കമ്പനി തന്നെയാണ് എത്രയും പെട്ടന്നുതന്നെ നമുക്ക് നമ്മുടെ മൊബൈൽഫോൺ ചാർജ് ചെയ്യാവുന്നതാണ് സീ ടൈപ്പ് ചാർജ്ജറാണ് അതുകൊണ്ട് പ്രൈസും വിലയും ഏകദേശം നമുക്ക് അഡാപ്റ്റ് ചെയ്തു പോകാൻ പറ്റുന്ന രീതിത്തന്നെയാണ് നമ്മടെ ഈ ചാർജ്ജറിൻ്റെ വിലയും അവര് അതിൽ കൊടുത്തിരിക്കുന്നത് എഴുനൂറു രൂപയാണ് വില പറയുന്നത് അറുവത്തേഴ് വാട്ടിൻ്റെ ചാർജ്ജറിനു സീ ടൈപ്പ് ചാർജ്ജറാണ് അത് ഏത് എല്ലാ തരത്തിലുള്ള മൊബൈൽസിനും സി ടൈപ്പുള്ള എല്ലാ മൊബൈൽസിനും അത് യൂസെയ്യാൻ പറ്റുംന്നാണ് അതാണ് കമ്പനി പറയണത് പെട്ടന്നെന്നെ ചാർജാവുന്നുണ്ട് പിന്നെ ഹീറ്റോ അല്ലെങ്കിൽ ചാർജ്ജർനു ഹീറ്റോ അങ്ങനെ ഒന്നും ഉണ്ടാവാറില്ല വിലയും അതിനനുസരിച്ച് നമുക്ക് ഒരു സാധാരണക്കാരന് പറ്റിയ രീതിയിലുള്ള വിലയാണ് അവരീ ഇതിനു ഈ ചാർജ്ജറിനു അവര് നൽകിയിരിക്കുന്നത് എല്ലാവർക്കും എവിടേക്കും കൊണ്ടുപോകാനാണേലും ശെരി എന്തിനും നല്ല യൂസ് ഫുള്ളായിട്ടുള്ള ഒരു ചാർജ്ജറാണ് റെഡ്മി ഈ ചാർജ്ജറിൽ കൊടുത്തിരിക്കുന്നത് സി ടൈപ്പ് ഉപയോഗിക്കുന്ന എല്ലാ ഫോണിനും ഉപയോഗിക്കാൻ പറ്റുംന്നാണ് കമ്പനി വാഗ്ദാനം ചെയ്യണത് പറയണത് അതുകൊണ്ട് എല്ലാവർക്കും നല്ല വിശ്വാസത്തോടെതന്നെ ഈ ചാർജ്ജർ വാങ്ങാവുന്നതാണ് പ്രത്യേകിച്ചതിനു ചൂടോ ചാർജിങ്ങിലൊരു സ്ലോ അങ്ങനെയൊന്നും ഉണ്ടാവാ അവര് പറയണത് പോലെത്തന്നെയാണ് ചാർജിങ് അതിൻ്റെ കപ്പാസിറ്റിയൊക്കെ വരുന്നത് രണ്ടു വർഷത്തെ വാറണ്ടിയും കമ്പനി പറയുന്നുണ്ട് ഈ ചാർജ്ജറിനു കേബിളും എല്ലാം ക്വാളിറ്റി ഉള്ള കേബിൾ തന്നെയാണ് അവരതില് കൊടുത്തിരിക്കണത് കമ്പനി അതിനൊരു വിട്ടുവീഴ്ചയും അവരിതിനു നൽകിയിട്ടില്ല മൊബൈൽ ഫോണിലും ഏത് സീ ടൈപ്പുള്ള മൊബൈൽ ഫോണിലും യൂസെയ്യാവുന്നതാണ് അതും പ്രത്യേകിച്ച് കേടുപാടൊന്നും വരുത്താത്ത രീതിയിലാണ് അവരത് സെറ്റ് ചെയ്തേക്കണത് മൊത്തത്തില് ഒരു നല്ലൊരു കസ്റ്റമേഴ്സിന് സാറ്റിസ്ഫൈ ആവണ രീതിലുള്ള ഒരു സർവീസാണ് റെഡ്മി ഈ ചാർജ്ജറിലൂടെ അവര് നൽകണത് എന്തായാലും ഉപഭോക്താവിനത് നല്ല രീതിത്തന്നെ അനുഭവിക്കാനും കഴിയും പെട്ടെന്നന്നെ ചാർജ്ജാവുംന്നുള്ളൊരു അവസ്ഥയാണ് എന്തായാലും നല്ല ഒരു കമ്പനി ചാർജ്ജർ തന്നെയാണ് റെഡ്മിടെ